പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി രണ്ട് പന്ത്രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി നാല് അഞ്ച് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുന്ന് മൂന്ന് ആയിരത്തി തൊള്ളായിരം